എന്നെ സ്വാധീനിച്ചൊരു മത നേതാവുണ്ടെനിക്ക് ഞങ്ങളുടെ പള്ളീലെ വികാരി ബിജിപല്ലൊന്നിലച്ചനാണ് അത് അച്ചൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളീൽ രണ്ട് വർഷത്തോളമുണ്ടായിരുന്നു മറ്റുള്ള അച്ചന്മാരെപ്പോലെ പോലെ ആയിരുന്നില്ല പുള്ളി ഇരുന്നത് പുള്ളി ഭയങ്കര എല്ലാവരുടടുത്തും ഭയങ്കര സൗമ്യമായി പെരുമാറി എല്ലാവരുടടുത്തും ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും ബാക്കി വേറൊരു ദേഷ്യമോ അങ്ങനെ ഒന്നും മുഖത്തില്ലാണ്ട് എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രമേ ആ പുള്ളീനെ കണ്ടിട്ടുള്ളത് അച്ചൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചൻ വഴിയാണ് എങ്ങനെ ഭക്തീലേക്കച്ചനാണെന്നെ നയിച്ചത് ഇരുന്നോണ്ട് എങ്ങനെ പ്രാത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിയ്ക്കണം എന്നൊക്കെ അച്ചനാണ് പറഞ്ഞ് തന്നത് ഇരുന്നോണ്ട് ഭക്തിയുടെ പല തലങ്ങളേക്കുറിച്ചും അച്ചനാണ് ഞങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുള്ളത് ഒരു ദൈവത്തോട് എങ്ങനക്കെ പ്രാർത്ഥിക്കണം എന്താണ് ദൈവം നമുക്ക് എങ്ങനെ ദൈവത്തിലേക്കടുക്കാം പള്ളീലേക്കക്കെ എല്ലാ ദിവസം നമ്മൾ പോകണം എന്താ പള്ളീടെ മഹത്ത്വം പ്രാർഥനേടെ മഹത്വമൊക്കെ അച്ചനാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്